ഹലോ ഹലോ ഇത് ഫർണീഷർ ഷോപ്പല്ലേ ആ എൻ്റെ വീടിൻ്റെ ഹൗസ് വോമിംഗ ആണ് അ പതിനായിട്ടുള്ള കൊറച്ച് ഫർണിച്ചറുകള് എനിക്ക് ആദ്യം കട്ടില് വേണം ഒരു അഞ്ച് അടി വളുപ്പത്തിലുള്ള കട്ടിൽക്കൊക്കെ എത്രയാണ് വെരുന്നത് ഏറ്റം നല്ല തടി ചെയത തേക്കൊക്കെ എങ്ങനെയാ പ്രൈസ് വെരുന്നത് നല്ല തടിയായിയിരുന്നു അയക്കോട്ടെ ആ ഓക്കെ ഓക്കെ

ആ അത് അപ്പം അതിെങ്ങനെ മരൊക്കെ നല്ലതാണോ നിററ കൊണ്ട്ണ്ടോ എല് മിററക്കെ ആ ഫീസൊക്കെണ്ട അൽമാറ അത്യാവശ്യം എല്ലത് വെക്കാൻ പറ്റും ഫീസൊക്കെ ആ ഓക്കെ ഓക്കെ ആ അപ്പം ഇത് പിന്ന് പ്രൈസൊക്കെ എങ്ങനൊ വെരുന്നേ ഈ തേക്കാണെങ്കിലുംര് എങ്ങനെയാ പ്രൈസ് വ കോമ്പോായിട്ടൊക്കെ എങ്ങനെയാ വരല്ലേ സൈ ആ അപ്പ ഈ കട്ടിലൊക്കെ ഇപ്പ അഞ്ചടിയ ആ നിട്ടട്ട് കിട്ടോ ണ്ടായിട്ട അല്ല കോമ്പോയിൽ അങ്ങനെ വരുമ്പോ കിട്ടോ ആ ഓക്കെ ഓക്കെ ഇന്ന പിന്നെ ഈ ചെയറൊക്കെ ചെയെയറും അതുപോലെന്നെ ടേി ഇ ഡൈനിങ് ടബിും ചെയറൊക്കെ അതക്കെങ്ങനെയാണ് ആ അതിൻ്റെ ഡിസൈനുക പുതിയ ഡിസൈനുകളൊക്കെ ഇണ്ടോ ആ ആ അപ്പ അത് നിും മഴ

ആ അല്ലാ അപ്പം ആ മരക്ക വരുന്ന നല്ല അരി ആ ഓക്കെ ഓക്കെ പിന്ന ആ ആ ഹോം ഡെലിവറി ചെയ്യാായിരിക്കല്ലേ അഈ ഷോഫൊക്കെ എങ്ങനെയാ വല്യ ഷോഫുകളൊക്കെ ഉണ്ടാവോ അത്യാവശ്യം അ ഓക്കെ ഓക്കെടീ പോയി അതുപോലെ തന്നെ സപ്പറേറ്റ ആക്കെ അത്മാവിലൊക്കെ അങ്ങനെയൊക്കെ ഇല്ലോ ഓക്കെ ഓക്കെ അപ്പോ ഓഫറ് ഏ ഹൗസ് വാമിംഗ ട്വൻറ്റി എയിത്ത് ആ ആ ഓക്കെ ഓക്കെ അപ്പം ഷോപ്പിലന്ന എൻ്റെ ഡീറ്റെയിൽസ് കൊറച്ചും കൂടി അറിയാൻ പറ്റൂല്ലേ കളറുകളൊക്കെ ശെരി വേരാം ഓക്കെ താങ്ക്യൂ